ആ ഹലോ ചേട്ടാ ഞാൻ ഇത് ബേക്കറി ഷോപ്പ് അല്ലേ ബേക്കിങ്ങ് ആ ചേട്ടാ ഞാൻ കേക്ക് ഓർഡർ ചെയ്യാനായിരുന്നു തിങ്കളാഴ്ച്ചത്തേക്ക് വേണ്ടിയിട്ട് എനിക്ക് ഒരു വൺ കെ ജി യുടെ കേക്ക് ആണ് വേണ്ടത് മറ്റേ ബ്ലാക്ക് ഫോറസ്റ്റ്

ആ അത് ചേട്ടാ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഓരോരോ കേക്കിൻ്റെ ഇതുവായിട്ട് എയിറ്റ് ഫിഫ്റ്റിയോ അത് എന്താ ഒരു എയിറ്റ് ഫിഫ്റ്റി അത്രയ്ക്കൊന്നും പറ്റത്തില്ല ഇവിടെ അഞ്ഞൂറ് രൂപയേ ഉളളൂ ലോ ആ വൺ കെ ജി ക്ക് അഞ്ഞൂറുണ്ട് എയിറ്റ് ഫിഫ് ആ അങ്ങനെ പറഞ്ഞാലും ചേട്ടാ വൺ കെ ജി ക്ക് ഒക്കെ എണ്ണൂറു രൂപ എന്ന് പറയുന്നത് ഇത്തിരി കൂടുതലല്ലേ ചേട്ടൻ അങ്ങനെ വാങ്ങി പക്ഷെ ഇവിടെ അടുത്തു തന്നെയാണ് തൊട്ട് ബേക്കറിയുടെ കുറച്ച് അടുത്തുതന്നെ ഞങ്ങളുടെ വീട് കാര്യങ്ങളൊക്കെ വരുന്നത്

വരും ഓക്കേ ഈ റെഡ് വെൽവറ്റ് റെഡ് വെൽവറ്റ് ഉണ്ടോ ചേട്ടാ അവിടെ അതിനോ അതിന് എങ്ങനെയാ

പഫ്സ് കാര്യങ്ങളായിട്ട്

ഓക്കെ അപ്പോൾ അതിനു നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോൾ എപ്പത്തേക്ക് എത്തിക്കും മോർണിംഗ് തിങ്കളാഴ്ച

ആ ഞാൻ ചേട്ടാ ഞാൻ സ്ഥലം പത്തനംതിട്ടയാണ് വരുന്നത് പത്തനംതിട്ട അടുത്തായിട്ട് പത്തനംതിട്ടയിൽ റാന്നി ആ ഓക്കെ തിങ്കളാഴ്ച മോർണിംഗ് തന്നെ എത്തിക്കാം ആ ബ്ലാക്ക് ഫോറ ഞാൻ ചോദിച്ചിട്ട് പറയാം ചേട്ടാ വീട്ടിൽ ഒന്നു ചോദിക്കണം റേറ്റും കാര്യങ്ങളും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഏ അപ്പോൾ ഞാൻ റേറ്റും കാര്യങ്ങൾ ഒന്ന് വീട്ടിലൊന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാം എന്താണ് ഇതിന്റെ കാര്യങ്ങളെന്ന് പിന്നെ പറയുന്നതാണ് കേട്ടോ മ്മ് ഓക്കെ ശരി ഏട്ടാ